ആ വരൂ വരൂ ആയിക്കോട്ടെ ഇരിക്ക് ഓക്കെ അശ്വതി അല്ലേ വർക്ക് ചെയ്യുകയാണോ ഇപ്പോൾ ആ ഓക്കെ രണ്ട് കുട്ടികൾക്ക് ആണ് അല്ലേ ഏതൊക്കെ സ്റ്റാൻഡേർഡിലേക്കാണ്

ആ ഓക്കെ പാലക്കാട് എവിടെയാണ് സ്ഥലം പറളി ഓക്കെ ഇപ്പോൾ എൽ കെ ജി മറ്റേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് ഉള്ള ആൾ മുമ്പ് എവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരിന്നത് പറളീയിൽ തന്നെ ആണല്ലേ ഓക്കെ ഇപ്പോൾ നമ്മുടെ അവിടേക്ക് ഫീസും കാര്യങ്ങളും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ വന്നിട്ട് നമുക്ക് കോഷൻ ഡെപ്പോസിറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് വരുന്നത് ഓക്കെ പിന്നെ മന്ത്ലി ഫീസ് വന്നിട്ട് നാനൂറ്റി അൻപത് രൂപയാണ് ട്യൂഷൻ ഫീസ് ആ ഫീസ് രെസീപ്റ്റ് തരും പിന്നെ നിങ്ങൾക്ക് ബസ് എങ്ങനെയാണ് അതായത് കോളേജ് സ്കൂൾ ബസ് ആണെന്ന് പറയുമ്പോൾ ആ ആ ഓക്കെ സ്കൂൾ ബസ്സിന് വന്നിട്ട് നമുക്ക് മുന്നൂറ് മുന്നൂറോ മുന്നൂറ്റി അൻപതോ അത്രയാണ് തോന്നുന്നു അത് കിലോ മീറ്റർ നോക്കിയിട്ട് കൺഫോം ആക്കിയിട്ട് പറയാം എന്തായാലും മൂന്നൂറ്റൻപതിൽ താഴെയേ വരുള്ളൂ ഓക്കെ ഇപ്പോൾ അതെ ആ കാരണം എൽ കെ ജിക്ക് ഇപ്പം നമ്മൾ തത്ക്കാലം ഉച്ച വരെ ഉള്ളൂ ക്ലാസ് രാവിലെ തൊട്ട് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ രാവിലെ ഒരുമിച്ച് വരാം തിരിച്ച് പോകുമ്പോൾ രണ്ടാളും സെപ്പറേറ്റ് ആയിരിക്കും ആ അവർക്ക് സ്നാക്ക്സ് എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി ഉച്ച ആകുമ്പോഴേക്കും എന്തായാലും പന്ത്രണ്ടര ഒരു മണി ആകുമ്പോഴേക്കും അവർ വീട് എത്തും അവർക്ക് ഇടക്ക് എന്തെങ്കിലും കഴിക്കാൻ ചെറിയ ബിസ്കറ്റോ അങ്ങനത്തെ എന്ത് സ്നാക്ക്സ് എന്തെങ്കിലും മാത്രം കൊടുത്ത് വിട്ടാൽ അവർക്ക് ജസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവർ കഴിക്കുമോ അങ്ങനെ അതായത് ചിലർ കൊടുത്ത് വിടും ചിലർ കൊടുത്ത് വിടില്ല അപ്പോൾ അത് നിങ്ങളുടെ ചോയിസ് ആണ് നമ്മൾ എന്തായാലും അവർക്ക് ചെറിയ ഒരു സ്നാക്ക്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താത്പര്യം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് വിടാം ഇല്ലെങ്കിൽ കുഴപ്പം ഒന്നും ഇല്ല ആ ബുക്ക്സ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ അവർക്ക് ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ നമ്മുക്ക് ഇവിടെ കോമണായിട്ട് തന്നെ ഉണ്ട് എല്ലാവർക്കും ഉള്ളത് നോട്ട് ബുക്ക് ഒരു സെറ്റ് നമ്മൾ തരും സെറ്റ് ബുക്ക്സ് അല്ല നോട്ട് ബുക്സ് ആ ഫീസ് അല്ല നോട്ട് ക്ക് നമുക്ക് ഒരു സെറ്റിന് നമുക്ക് ഫസ്റ്റ് സെറ്റ് തരുമ്പം ഫ്രീ ആയിരിക്കും അടുത്ത സെറ്റിൻ്റെ നോട്ട് മാത്രം പേ ചെയ്താൽ മതി ഇതിന് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ആറ് സബ്ജക്ട് ആണ് അപ്പം ആറ് നോട്ടു ബുക്കും ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ തരും അതുപോലെ ഇപ്പോൾ എൽ കെ ജിക്ക് ആ ആ അപ്പോൾ എൽ കെ ജിക്ക് പിന്നെ അറിയാമല്ലോ ചെറിയ നമ്മുടെ കോമൺ ബുക്കുകൾ മാത്രമേയുള്ളൂ അപ്പം അവർക്ക് വലിയ ബുക്ക് കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ അവർക്ക് ഈ കഥ വായിക്കാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ബുക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ഇടയ്ക്ക് നമ്മളുടെ കോമൺ ആയിട്ടുള്ളത് അത് നമ്മൾ ഓരോ മാസത്തേക്ക് ഓരോ ഇത് ഒക്കെയാണ് അപ്പം അത് നിങ്ങളുടെ ഇതിൽ നോക്കിയാൽ അറിയാം ഒരു ടൈം ടേബിൾ ആ ഒരു സ്ട്രക്ച്ചർ സിലബസ്സ് നോക്കിയാൽ അറിയാൻ പറ്റും

യൂണിഫോം നിങ്ങൾ ഫീസ് അടച്ച് ഇപ്പോൾ ഇനി ഇപ്പം എന്തായാലും മൂന്നാല് ദിവസം ലീവ് ആയതു കൊണ്ട് ഇപ്പം കിട്ടുമോ എനിക്ക് അറിയില്ല നോക്കാം നമുക്ക് മാക്സിമം ഇന്നു തന്നെ നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾ വന്നിട്ടുണ്ടോ ആ ഓക്കെ അപ്പം അവരുടെ ആ അളവും കാര്യങ്ങളും ആ അറിയാമോ നിങ്ങൾക്ക് ആ അപ്പം അത് അവിടെ പറഞ്ഞാൽ ഷർട്ടും ആ ട്രൗസർ അത് ഒക്കെ കിട്ടുമായിരിക്കും മിക്കവാറും കിട്ടും ഓക്കെ അവർ അടച്ചിട്ട് ഇല്ലയെന്ന് വിചാരിക്കുന്നു ലേറ്റ് ആയതു കൊണ്ട് ഇനി ഇപ്പം അവർ ക്ലോസ് ചെയ്തോയെന്ന് അറിയില്ല എന്തായാലും മാക്സിമം ഒന്ന് പോയി നോക്കൂ അതുപോലെ ഓഫീസിൽ ഫീസ് അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റും ആയിട്ട് വേണം പോകാൻ ഓക്കെ ആ അതായത് ഓഫീസ് റൂമിൻ്റെ അപ്പുറത്ത് തന്നെ ആണ് മറ്റേ നമ്മുടെ യൂണിഫോമിൻ്റെ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ഇന്ന് മേടിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ ഇന്ന് മേടിക്കാം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ പിന്നെ എപ്പോഴെങ്കിലും വന്ന് മേടിച്ചാലും മതി ബുക്ക് ബുക്ക്സ് ഒക്കെ എപ്പം വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇനി എന്തായാലും വരുമ്പോൾ ഹസ്ബൻഡിനെയും കൊണ്ട് വേണം വരാൻ അടുത്ത മീറ്റിംഗിന് വരുമ്പോൾ കേട്ടോ